ഹലോ ഗീതു ട്രാവൽസല്ലേ ഞാൻ നിങ്ങളുടെ ട്രാവൽസിൽ ബുക്ക് ചെയ്ത് ഒരു വണ്ടി വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് മൂന്നാർ ട്രിപ്പായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ നിങ്ങൾ പറഞ്ഞിരുന്ന ചാർജ് അനുസരിച്ചാണ് ഞാൻ പല ഏജൻസികളിൽ വിളിച്ചിട്ടാണ് നിങ്ങളെ വിളിച്ചത് അപ്പോൾ നിങ്ങളുടേതാണ് എനിക്ക് കംഫർട്ടബിളായി തോന്നിയത് അങ്ങനെ വിളിച്ച് ഞാൻ ബുക്ക് ചെയ്ത് അവിടെ ചെന്ന് തിരിച്ചെത്തിയപ്പോൾ ഡ്രൈവറ് പറയുന്നു ആ ചാർജ് പറ്റത്തില്ല കുറച്ച് കൂടെ വേണമെന്ന് അത് ബുദ്ധിമുട്ടാണ് കൊടുക്കാനായിട്ട് നിങ്ങൾ ഡ്രൈവറെ ഏർപ്പെടുത്തി വിടുമ്പോൾ പറയണം ഇങ്ങനെ പറ്റത്തില്ല പിന്നെ ആൾക്കാർ ഞങ്ങടെ കസ്റ്റമേഴ്സിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കരുതെന്ന് പറയണം ഇനി ഇങ്ങനെ ആണെങ്കിൽ ഇനി ഞാൻ നിങ്ങളുടെ പിന്നെ ട്രാവലറിൽ ട്രാവൽസിൽ വിളിച്ച് വണ്ടികളൊന്നും ബുക്ക് ചെയ്യത്തില്ല എനിക്ക് വളരെ ബുദ്ധിമുട്ട് നല്കിയൊരു അനുഭവമാണ് നിങ്ങളുടെ ട്രാവൽ ഏജൻസിയിൽ നിന്നും എനിക്ക് കിട്ടിയത് ട്രാവൽസിൽ നിന്നും എനിക്ക് കിട്ടിയത് കേട്ടോ